നമുക്ക് അറിയാം ജൈവവളങ്ങളെക്കാൾ ഇന്ന് ലോകത്ത് ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്നത് രാസ പദാർത്ഥമുള്ള കീടനാശിനികൾ കീടനാശിനികളാണ് ഈ രാസ പദാർത്ഥങ്ങൾ കൊണ്ട് കൃഷികൾ നടുകയും ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്നും തന്നെ എന്ത് വിളകളും വിളകൾ ലഭിക്കും പക്ഷേ ആ രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ച മണ്ണ് പിന്നീട് ഇത്തരത്തിലുള്ള കൃഷികൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുകയില്ല പക്ഷേ ആധുനിക ടെക്നോളജി പുരോഗമിച്ച് കൊണ്ടിരിക്കുന്ന കാലത്ത് അതിനുള്ള ടെക്നോളജിയും കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ ഇത്തരത്തിലുള്ള കീടനാശിനികളെ ഉപയോഗിച്ചിട്ടുള്ള വിളകൾ അത് മനുഷ്യന് ഒരിക്കലും അത് അവന്റെ ശരീരം ശരീരത്തിന് അത് നല്ലതല്ല കീടനാശിനികളിൽ ഉപയോഗിച്ചിട്ടുള്ള വിളകളും പഴങ്ങൾ കൊണ്ടും മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും അത് കാരണം മരണം വരെ കാരണമാകും എന്നതിൽ യാതൊരു തർക്കവുമില്ല എന്നെ സംബന്ധിച്ചെടുത്തോളം ഞങ്ങൾ എല്ലാം കടകളിൽ നിന്നായിരുന്നു ഫ്രൂട്ട്സുകളും പച്ചക്കറികളെല്ലാം വാങ്ങാറുള്ളത് എന്നതിനുപരി ഞങ്ങളുടെ വീടിൻ്റെ ടെറസ് ടെറസ്സിൻ്റെ മുകളിൽ ഞങ്ങൾ കൃഷി നടത്താൻ കൃഷി നടത്തുന്നുണ്ട് ആ കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വിളകൾ പഴങ്ങൾ പച്ചക്കറികൾ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ തന്നെ ഉപയോഗിച്ചു കൊണ്ട് ഇടക്കിടക്ക് ജൈവ രീതിയിലുള്ള ഫലങ്ങളും പഴങ്ങളും ഞങ്ങൾ കഴിക്കാറുണ്ട് ഇതുപോലെ തന്നെ തന്നെ സ്വന്തം വീടുകളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ച്ച വെച്ചാൽ നമുക്ക് ഈ രാസ പ്രവർത്തനങ്ങളും രാസ പ്രയോഗിച്ചുള്ള ഫലങ്ങളും ജൈവം വളങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഈ ഫലങ്ങളും ഉപയോഗിച്ച് ഒരു ബാലൻസ് രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല ഞങ്ങൾക്ക് ഇതുപോലെ പ്രവർത്തിക്കാൻ കർഷകൻ കൃഷി ചെയ്യാനുള്ള കൂടുതൽ സ്ഥലങ്ങളില്ലാത്തത് കൊണ്ടാണ് കുറച്ച് ചെയ്യുന്നത് കൂടുതൽ സ്ഥലമുള്ള ആളുകൾക്ക് ധാരാളം നല്ല ജൈവ കൃഷികൾ ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും രാസ പ്രവർത്തനങ്ങൾ ഉപയോഗിച്ച് ഫലങ്ങളേക്കാൾ എത്രയോ ഉപയോഗവും നല്ലതുമായ ഗുണങ്ങളുമുള്ള ഫലങ്ങളാണ് ജൈവം കൊണ്ട് കൃഷി ചെയ്തിട്ടുള്ള വിളകൾ എന്നത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നിന്ന് തന്നെ ആ ഫലങ്ങളെ നോക്കിയാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഞാൻ പല സമയത്തും എൻ്റെ ദൃശ്യയിൽ പതിഞ്ഞിട്ടുമുണ്ട്